ഹലോ ആ പറയൂ എന്താ പേര് അതെ ആ ഓക്കെ ഓക്കെ ൻ്റെ പേരാണ് സ്ഥലം എവിടെയാണ് പറയൂ ആ ഓക്കെ നിങ്ങളുടെ പേര് പറയൂ പേര് പറയൂ സ്ഥലം പറയൂ ആ ആ

എത്ര എത്രയായി ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഒര് മാസമാകാനായി ആ നിലവിൽ പ്രത്യേകിച്ച് എന്തേലും ബുദ്ധിമുട്ടോ കാരണങ്ങളോ വീട്ടിൽ ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തേലും ഫിനാൻഷ്യലിയോ മെൻ്റലിയോ അങ്ങനെ എന്തേലും ആ ആ അതിലൊക്കെ

എന്തായാലും ഇതില് കുഴപ്പമൊന്നും ഇല്ല ഇത് ഇപ്പോൾ നിങ്ങളുടെ മെൻ്റലി പ്രോബ്ലം ആണ് കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കാരണം കുട്ടികൾ ഇപ്പോൾ പല ഏജ് ഉള്ള കുട്ടികളാകും എത്ര വയസുള്ള കുട്ടികളാണ് ആ ആണോ കുഴപ്പം ഒന്നുമില്ല കുട്ടികളുടെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മള് കുറെ ഇപ്പോൾ പഠി കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെൽ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ വരുതിക്ക് വരുന്നില്ല വിചാരിച്ച് ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കണ്ട ആവശ്യം ഒന്നും ഇല്ല നമ്മളും ഇപ്പോൾ ഇതേ പോലെ തന്നെ പഠിച്ച് വന്നതല്ലേ നമ്മളുടെ രക്ഷിതാക്കളും ഇതേപോലെ ടെൻഷൻ ഒക്കെ അനുഭവിച്ചിരിക്കൂലെ അവര് ഭക്ഷണം കഴിക്കാതെ ഇപ്പോൾ ഉമ്മ ഇതേപോലെ ഭക്ഷണം കഴിക്കാതെയും ഇതേ പോലെ ഉറങ്ങാതെയും ആയി കഴിഞ്ഞാൽ ഉമ്മയുടെ ഹെൽത്ത് എന്താകും അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും ഒരു പാരൻറ്റ്സിൻ്റെ കേറിംഗ് കിട്ടുമോ ആ നിങ്ങള് ചെയ്യേണ്ടത് ഇതാണ് കുട്ടികള് ആ കുട്ടികളുടെ കാര്യങ്ങൾ ഒക്കെ അതവര് ചെയ്തോളും നിങ്ങൾ മാക്സിമം നിങ്ങള് ചെയ്യാനുള്ളത് ചെയ്യുക ആ നിങ്ങള് വേണ്ടത് നിങ്ങള് കറക്ട് ആയിട്ട് കാരണം നിങ്ങൾക്ക് വീട്ടിൽ എന്തേലും യോഗ കാര്യങ്ങളോ രാവിലെ എത്ര മണിക്കാണ് എണീക്കാറ് എണീക്കും ആ ആ പിന്നെ അടുക്കളയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഒക്കെ അതിനുള്ള തിരക്കുകൾ ആകും അല്ലേ അ ഒക്കെ അതിന് രാവിലെ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് കുട്ടികൾ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആകുക കാരണം നിങ്ങളുടെ ജോലികൾ ഒക്കെ പെട്ടെന്ന് ഇതാക്കിയിട്ട് കാരണം ഇപ്പോൾ ചിലപ്പോൾ വീട്ടിലത്തെ തിരക്കുകളും കുട്ടികളുടെ ഇതും കൂടി ആകുമ്പോൾ മനസ്സില് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് പിടിച്ച് നിൽക്കാനോ ചെറിയൊര് ഒരു മൈൻഡ് കിട്ടില്ല അത് ചിലപ്പോൾ പെട്ടെന്ന് സ്ട്രെസ്സാണ് സ കാലഘട്ടം ഒക്കെ ചില ആളുകൾക്ക് വരാറുണ്ട് ചിലർക്ക് കുഴപ്പം ഇല്ല എന്ത് വന്ന് പ്രതി പ്രതികൂല സാഹചര്യങ്ങള് വന്നാലും അവരത് അത് തരണം ചെയ്യും ഇപ്പോൾ നിങ്ങൾ ചെയ്യണ്ടത് ചെറിയ പ്രോബ്ലം ആണ് ഇപ്പോൾ നിങ്ങൾ അത് അത്ര വലിയ വിഷയം ഒന്നും അല്ല നമ്മളുടെ അടുത്തിപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒക്കെ വരുന്ന അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചെറിയൊര് പ്രോബ്ലമാണ് നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കുക നിങ്ങളുടെ കർമ്മങ്ങളും കാര്യങ്ങളും പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങള് ചെയ്യേണ്ടത് ചെയ്യുക പ്രാർത്ഥന ഉണ്ടാകുക അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ഒരു വിശ്വലൈസേഷൻ ഒക്കെ കാരണം നിങ്ങളുടെ കുട്ടികള് നല്ല രീതിയിലാകും ഇപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നത് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെയായി നല്ല മാർക്കൊക്കെ വാങ്ങി ജോലി ഒക്കെ നേടുന്നത് നിങ്ങളൊന്ന് മുൻകൂട്ടി കാണുക രാവിലെ ഒരഞ്ച് ഒരു ഒര് ഒര് കാൽ മണിക്കൂറ് ആ ഓക്കെ ആ